പാട്ടുകാർ സാധാരണയായി ഇങ്ങനെ കുറേ തെറ്റുകൾ വരുത്താറുണ്ട് മെയിനായിട്ട് വരുന്നത് പിച്ച് അവരുടെ സൗണ്ട് പ്രാക്റ്റീസിൻ്റെ കുറവ് മൂലം സൗണ്ടിൽ നല്ല പ്രശ്നം വരുന്നുണ്ട് പിന്നെ മറ്റു ഗായകരെ അവർ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ആ ഒരു ശബ്ദം അവർക്ക് പുറത്ത് വരാതിരുത്താൻ കഴിയുന്നു പിന്നെ എന്താ ഇടുങ്ങിയ ശബ്ദത്തിൽ പാടുന്നത് പിന്നെ ഹൈപിച്ചിൽ വരും സൗണ്ട് കൂട്ടേണ്ട സിറ്റുവേഷൻസ് വരുമ്പോൾ സൗണ്ട് പതറിപ്പോവുന്നു പിന്നെ തെറ്റായി സോങ്ങ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തെറ്റായിട്ട് ശ്വാസം എടുക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ കൂടുന്നു പിന്നെ വേണ്ട സ്ഥലത്ത് മാത്രം എന്താ പാസ്സോം ഇങ്ങനിങ്ങനെ ഹൈപിച്ച് കൊടുക്കുക എല്ലാ സ്ഥലത്തും ഹൈപിച്ച് കൊടുക്കാതിരിക്കുക എല്ലാ സ്ഥലത്തും ലോപിച്ച് കൊടുക്കാതിരിക്കുക കറക്റ്റ് സമയത്തത് മാറ്റുക അങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഗ്രൂപ്പ് സോങ്ങിൻ്റെ കേസ് വരികയാണെങ്കിൽ പ്രാക്റ്റീസ് ഇല്ലാത്തത് നമുക്ക് നല്ലപോലെ ഗ്രൂപ്പ് സോങ്ങ് റിഫ്ലക്റ്റ് ചെയ്യും കാരണം ഒരുപാട് പേര് പാടുമ്പം എന്താ ഓരോരുത്തരുടെയും സൗണ്ട് ഡിഫറെൻ്റാവുന്ന നമുക്ക് നല്ലപോലെ റിഫ്ലക്റ്റ് ചെയ്യും അവരിൽ നിന്ന് പലരുടെയും സൗണ്ട് പലതാണല്ലേ പരിശീലനത്തിലൂടെ എന്തു ചെയ്യുക അത് ഒരുപോലെ ആക്കാൻ മാക്സിമം ശ്രമിക്കുക പിന്നെ വരുന്നൊരു പ്രശ്നമെന്താണെന്ന് വച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ജലദോഷം തൊണ്ടയ്ക്ക് വേദന അങ്ങനെ സൗണ്ടിനെ ബാധിക്കുന്ന അസുഖങ്ങളൊക്കെ വന്ന് കഴിയുമ്പോഴത്തേനും അത് നല്ല രീതി നമ്മുടെ സോങ്ങിനെ അഫ്ഫെക്റ്റ് ചെയ്യും അപ്പം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ പിന്നെ ഒരുപാട് അലറിപ്പാടാതിരിക്കുക മാക്സിമം ഒരു ആ പാട്ടിൻ്റെ അനുസരിച്ച് സോഫ്റ്റാണ് സ്മൂത്ത് സോഫ്റ്റായിട്ട് പാടുക അല്ലെങ്കിൽ എന്താ കുറച്ച് ഹൈപിച്ച് അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഇത് ഗാംഭീര്യം കൊടുക്കേണ്ട സോങ്ങ്സ് ആണെങ്കിൽ അങ്ങനെ പാടുക അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുക്കതെങ്ങനെ ഒഴുവാക്കുന്നു വച്ചാൽ മെയിൻ കണ്ടെൻ്റാണ് പ്രാക്റ്റീസ് ഒരു സോങ്ങ് ഏറ്റവും ബെറ്ററാക്കാൻ കഴിയുന്ന പ്രാക്റ്റീസിലൂടെയാണ് പിന്നെ അനുകരണം ഒഴുവാക്കുക മറ്റു സിംഗേഴ്സിനെ അനുകരിച്ച് പാടാതിരിക്കുക നമ്മുടെ സൗണ്ട് കൊണ്ട് മാക്സിമം നമ്മുടെ സൗണ്ടിനെ സ്വീറ്റാക്കി പാടാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ഈ ശ്വാസം എടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ ഒത്തിരി നമ്മളിങ്ങനെ നോർമലി ശ്വാസം എടുക്കുന്നതുപോലെ ആ പാട്ടിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് ആ ശ്വാസം എടുക്കുന്നതിന്ന് ഫീൽ ചെയ്യാൻ പറ്റാത്ത പോലെ അക്കുക അങ്ങനിങ്ങനെ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഗ്രൂപ്പ് സോങ്ങാണെങ്കിൽ പെർഫെക്റ്റ് പ്രാക്റ്റീസ് ഉറപ്പായിട്ടും പെർഫെക്റ്റ് പ്രാക്റ്റീസ് കിട്ടിയിരിക്കണം പിന്നെ വോയിസ് എവിടെ ഉയർത്തണം എവിടെ താഴ്ത്തണം എവിടെ സ്മൂത്താക്കണം അതെല്ലാം കൃത്യമായി കൃത്യമായി നമ്മൾ ഓരോ പോയിൻ്റും നോട്ട് ചെയ്ത് വയ്ക്കണം എന്നാൽ മാത്രമേ നമുക്ക് അതിനെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ കുറച്ച് കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾക്ക് ഇത് ചെയ്യാൻ പറ്റും പിന്നെ സൗണ്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ ഇവൻ്റ്സ് കോൺടെസ്റ്റ് ഒക്കെ വരികയാണേൽ തണുത്ത കഷണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തൊണ്ടയ്ക്ക് പ്രശ്നങ്ങൾ വരുന്ന സിറ്റുവേഷൻസ് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക അങ്ങനെയൊക്കെ നമുക്കിതിനെ ഒഴിവാക്കാൻ പറ്റും